ആ അതെ പറഞ്ഞോളൂ ആ ഓക്കെ ടെസ്റ്റ് ആ പോസിറ്റിവ് ആണല്ലേ ആ എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും പോയിരുന്നോ പിന്നെ ആ ഓക്കെ ആ ഓക്കെ അപ്പം നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നോ പോയിട്ടില്ല ക്വാറൻറ്റേനിൽ തന്നെ ഇരിക്കുവായിരുന്നോ ആ ഓക്കെ ഇപ്പോൾ നമുക്ക് ക്വാറൻറ്റേനിൽ തന്നെ ഇരിക്കാൻ പറയാനേ പറ്റുള്ളൂ പുറത്തൊന്നും അധികം ഇറങ്ങേണ്ട പിന്നെ മരുന്ന് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഒന്നും അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റില്ല നിങ്ങ പാരസെറ്റമോൾ തന്നെ കഴിക്കുന്നത് ആയിരിക്കും ഇത് ആ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുക പിന്നെ പുറത്ത് ഒന്നും അധികം ഇറങ്ങാൻ നിൽക്കരുത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ മരുന്ന് കഴിക്കാവുള്ളൂ ഗുളിക അതിന് ശേഷമേ കഴിക്കാവൂ ആ പിന്നെ വേറെ ഒന്നും നമുക്ക് അങ്ങനെ വേറെ ചെയ്യാൻ പറ്റില്ല ഇതിൽ

അത് തന്നെ കുറഞ്ഞോളും അത് നിങ്ങൾക്ക് കുറച്ച് ഒരു പതിനാല് ദിവസം കൊണ്ട് തന്നെ കുറയും അത് വീട്ടിലുള്ളവരുമായിട്ട് അധികം സമ്പർക്കം വീട്ടിൽ ഉള്ളവരും ആയിട്ട് ആയാലും പുറത്ത് ഉള്ളവർ ആയിട്ട് ആയാലും അധികം വേണ്ട അത് വേണ്ട കാരണം ഇത് പെട്ടന്ന് തന്നെ സ്പ്രെഡ് ആവും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ആ സാനിറ്റൈസർ ഒക്കെ ഫുൾ ടൈം സാനിറ്റെെസ് ചെയ്ത് മാസ്ക് വെച്ചോളൂ മാസ്ക് വയ്ക്കാണ്ടോന്നും നടക്കേണ്ട പിന്നെ അധികം നിങ്ങൾ ഒരു പതിനാല് ദിവസം നോക്കൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ അധികം പുറത്തൊന്നും പോകേണ്ട ആ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോളൂ കുഴപ്പമില്ല ആയിക്കോട്ടെ നിങ്ങൾ സ്ഥലം എവിടെയായിരുന്നു മാനന്തവാടി അല്ലേ ഓക്കെ ഓക്കെ